ഈ അടുത്തായിട്ട് ഞാന് ഓൺലൈനിൽ നിന്ന് ഒരു അഞ്ച് പ്ലാസ്റ്റിക് കണ്ടൈനേഴ്സ് വാങ്ങിട്ടുണ്ടായിരുന്നു ഏറ്റവും വലുതു മുതൽ ചെറുത് വരെ ഇങ്ങനെ വരുന്ന ഓർഡറില് ഒരു അഞ്ച് പ്ലാസ്റ്റിക് കണ്ടൈനേഴ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തതിനേക്കാളും കൂടുതൽ റിസൾട്ടാണ് ആക്ച്വലി ഓൺലൈൻ പർച്ചേസിങ് എനിക്ക് തന്നത് അതായത് ഞാനുദ്ദേശിച്ച പോലെയുള്ള കളറും സെയിം സെയിം സാധനമൊക്കെത്തന്നെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ നല്ല ഹാപ്പി ആവും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നൈബേഴ്സിൻ്റടുത്തതൊക്കെ ഇതിനെക്കുറിച്ച് ഓൺലൈൻ പർച്ചേസിങിനെ കുറിച്ചൊക്കെ ഉള്ള ഫീഡ്ബാക്ക് അവരോട് ചോദിക്കുമ്പോൾ അവര് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് സാധാരണ പറയാറുള്ളത് അതായത് നമ്മള് ഉദ്ദേശിച്ചതിനു പോലത്തെ സാധനങ്ങളല്ല കിട്ടാ കളറില് കളറിലും പിന്നെ അതിൻ്റെ ഷെയിപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഭയങ്കര ഡൗൺ ആയിട്ട് ഇരുന്നായിരുന്നു പക്ഷെ ഓൺലൈനെന്ന് ഞാന് പർച്ചേസെയ്തപ്പോൾ ഇപ്പോൾ പർച്ചേസെയ്തപ്പോൾ ഞാനാദ്യം തന്നെ പർച്ചേസെയ്തത് പ്ലാസ്റ്റിക് കണ്ടൈനേഴ്സാണ് ഒരഞ്ചെണ്ണം അതെനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കി കാരണം ലോ ആയിട്ടുള്ള റേറ്റില് ഗുഡ് ക്വാളിറ്റിയിലാണവരത് എനിക്ക് എത്തിച്ചു തന്നത് അതുപോലെ ഫസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ആയതു കൊണ്ടുതന്നെ എനിക്ക് ഡെലിവറി ഫ്രീ ആയിരുന്നു അതുകൊണ്ടുതന്നെ ഞാന് ഭയങ്കര സന്തോഷമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനുദ്ദേശിച്ച സെയിം ബ്ലൂ കളറിലുള്ള പ്ലാസ്റ്റിക് കണ്ടൈനേഴ്സ് തന്നെയായിരുന്നു സെയിം സൈസായിരുന്നു നമുക്കൊരുപാട് ഒരുപാട് സ്റ്റഫ് അതില് കൊള്ളുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള കണ്ടൈനേഴ്സായിരുന്നു അവ ആദ്യം വലിയൊരു കണ്ടൈനർ അതിനകത്തിങ്ങനെ നാലു ചെറിയ നാലു കണ്ടൈനേഴ്സ് സൈസ് ഡിക്രീസ് ചെയ്യുന്ന രീതിയില് നാലെണ്ണം അപ്പോൾ നമുക്ക് നന്ന നല്ല രീതിയില് ഇപ്പോൾ ഫ്രിഡ്ജില് വെക്കാനാണേലും അല്ലെങ്കില് എന്തെങ്കിലും കറിയൊക്കെ സൂക്ഷിക്കാനാണെങ്കിലും അല്ലെങ്കില് കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ കൊടുത്തു വിടാനാണെങ്കിലും ആ കണ്ടൈനേഴ്സൊക്കെ നല്ല യൂസ്ഫുള്ളാണ് യൂസ്ഫുള്ളാണ് പിന്നെ അതുപോലെതന്നെ ഇത്ര ലോ റേറ്റില് നമ്മള് എന്തായാലും പുറത്ത് നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ലോ റേറ്റില് കിട്ടില്ല അപ്പോൾ ഇതാകുമ്പോ ലോ റേറ്റില് ഗുഡ് ക്വാളിറ്റിലുള്ള എക്യുപ്മെൻ്റ്സ് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും കസ്റ്റമേഴ്സിന് നല്ല സന്തോഷമുണ്ടാകും ഞാൻ നല്ല ഹാപ്പിയാണ് ഈ പർച്ചേസിങ്ങില്